ഞാൻ ദീദിയെന്നു പറയുന്ന ഒരു കമ്പനിയുടെ ഹെയർ ഷാംപൂ വാങ്ങിയിരുന്നു ഐ മീൻ ഹെയർ കണ്ടീഷ്ണർ ഞാൻ വാങ്ങിയപ്പം ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ് മുടിയൊക്കെ ഇതാകും താരനൊക്കെ പോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് മേടിച്ചതായിരുന്നു ഞാൻ മേടിച്ച് ഒരു രണ്ടു ദിവസം യൂസ് ചെയ്തു ഐ മീൻ രണ്ടു ദിവസം കുളിക്കുന്ന ടൈമിൽ ഞാൻ തേച്ച് അഞ്ച് മിനിറ്റ് നിന്ന് യൂസ് ചെയ്തിരുന്നു ഫസ്റ്റ് ദിവസം തേച്ചപ്പം തന്നെ ഇത് എനിക്ക് വളരെ ഫ്ലോപ്പ് ആയിട്ടാണ് തോന്നിയത് ഐ മീൻ പെട്ടെന്ന് എൻ്റെ എന്തൊക്കെയോ ഒരു ഇതായിരുന്നു മുടിയൊക്കെ പെട്ടെന്ന് ഒരുമാതിരി ചുരുളുന്നു അങ്ങനെയൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയായിരുന്നു രണ്ടാമത്തെ ദിവസം കൂടി ഇത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വളരെ മോശമായിട്ടുള്ള സാധനമാണെന്ന് ഐ മീൻ അത് ഞാൻ യൂസ് ചെയ്ത് അടുത്ത ദിവസം തൊട്ട് ഞാൻ ചീ മുടി ചീകാൻ നേരത്ത് കുറേ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നു പിന്നെ മുടിയെന്നൊക്കെ പറയുമ്പം ഇങ്ങനെ കൈ വെറുതെ ഇങ്ങനെ നമ്മൾ കൈവെച്ച് തൊടുമ്പോഴേയ്ക്കും അത് ഒരു ചെറിയ പീസ് പീസ് ആയിട്ട് പൊട്ടി പോകുന്നു ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് അത് കമ്പനിയിൽ നിന്ന് വന്നത് ആ ഒരു ഇതിൽ നിന്നു വന്നത് എന്ന് വെച്ച് കഴിയുമ്പം താരൻ പോകും അങ്ങനെയൊക്കെ പറയുന്നതു കേട്ടിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷെ ഇത് എന്ന് പറയുമ്പം എൻ്റെ മുടിയടക്കം ഫുൾ പോയി ഒരു ദിവസം ചീകുമ്പം തന്നെ എന്തോരം മുടിയാണെന്ന് അറിയാമോ എൻ്റെ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്